ആ സാറേ എനിക്കൊരു ഇൻഷുറൻസ് എടുക്കണവായിരുന്നു ആ പിന്നെ ന്യൂ ജീവനല്ലേ അല്ലാതെ വേറെ ഏതൊക്കെയുണ്ട് ന്യൂ ജീവനാണല്ലേ അതെങ്ങനെയാണ് അതിൻ്റെ സ്കീമുകളൊക്കെ വർഷത്തിലൊരിക്കലാണോ അടവ് വരുന്നത്

ഒരു വർഷത്തില് ആയിരം രൂപ വെച്ച് അടവ് വരുന്നുണ്ട് അതോ റോഡ് ആക്സിഡൻറ്റ് അങ്ങനൊക്കെയാണോ

ആക്സിഡൻറ്റ് ആകുമ്പോൾ നവമിക്ക് ആ എമൗണ്ട് കിട്ടും

ആക്സിഡൻറ്റ് അല്ലാതെ ഇങ്ങനെ തളർന്ന് കിടക്കുന്നതാണങ്കിലും പൈസ കിട്ടും അതോ

ഓപ്പറേഷൻ അങ്ങനെ കഴിഞ്ഞവർ ഇരിക്കുന്നു അങ്ങനെ ക്ലെയിമ് ചെയ്യാൻ പറ്റണ്ടേ ഇൻഷുറൻസേയില്ല അതിൻ്റെ പ്രൊസീജറൊക്കെ എങ്ങനെയാണ് ഇൻഷുറൻസിന് ഇതിപ്പോൾ സാറിനെ ഏൽപ്പിച്ചാൽ തന്നെ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ ചെയ്യുവോ അതോ നമ്മൾ ഓഫീസിൽ പോയി ചെയ്യണോ നമ്മൾ ജോയിൻ ആകുന്ന സമയം തൊട്ടാണോ അടവ് വരുന്നത് ആ മനസിലായി മനസിലായി ഇല്ലത് പിന്നീടൊരു ദിവസം നേരിൽ കണ്ട് ഏൽപ്പിക്കാം